കൂടുതൽ നേരം സ്ക്രീനിൻ്റെ മുന്നിലിരുന്നാൽ അവര് അവരുടെ പഠിത്തത്തിൽ കുറയും പഠിത്തം കുറയും പിന്നെ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാകില്ല അതൊക്കെ അവര് ഇംപ്രൂവ് ചെയ്യാൻ മറക്കും പിന്നെ അവര് എപ്പോഴും ഫോണിനെ മാത്രം അതായത് ആ സ്ക്രീനിനെ മാത്രം ആശ്രയിച്ച് ഇരിക്കും എന്ത് കാര്യത്തിനും ഏതിനും അപ്പം നമ്മൾ അത് കുറക്കാൻ വേണ്ടിട്ട് അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഇമ്പ്രൂവ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അവരുടെ അവർക്ക് എന്താണ് അവരുടെ ഹോബീസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊടുക്കുക അതാണ് ഇപ്പോൾ ഇതിനുള്ള പറ്റിയ ഒരു ആൻസർ